ആ ഹലോ ആ ഹലോ ആ ഇത് കെ എസ് ആർ ടി സി കോഴിക്കോട് പോകുന്ന ട്രാൻസ് പോർട്ടിൻ്റെ ഡ്രൈവറല്ലേ ആ അതെ ആ ഞാന് ആ നമ്മള് ഞാൻ രാവിലെ ബസ്സിന് കയറിയതാണേ നമ്മള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയപ്പോള് ഞാൻ ബസ്സിലുണ്ട് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിറങ്ങിയപ്പോള് ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടോ ഡ്രൈവറുടെ ഡ്രൈവറിന്റെ നമ്പർ ഞാൻ നെറ്റി നോക്കി എടുത്തതാണേ ഓ ആ ഡിപ്പോയില് ചോദിച്ചപ്പോള് പറഞ്ഞു ആ പി എനിക്ക് എന്റെ കൂടെ എന്റെ വൈഫുണ്ടേ എന്റെ വൈ അപി നിങ്ങളുടെ ഈ രാവിലെ കയറിയപ്പോള്

ഞാനൊരു സൂപ്പർ ഫാസ്റ്റിലാണ് കയറിയിരിക്കുന്നത് ആ സൂപ്പർ ഫാസ്റ്റെന്നു പറയുമ്പോൾ ലോക്കൽ ബസ്സിനും സൂപ്പർ ഫാസ്റ്റിനും അത് വണ്ടിക്ക് ഓടിക്കുന്നതിനും ഒരു ഇത്ര കിലോമീറ്ററിലേ ഓടിക്കാവൂ എന്നുള്ളൊരു നിബന്ധന സർക്കാര് വെപ്പിച്ചാണ് നിങ്ങൾക്ക് ലൈസൻസ് തന്ന് നിങ്ങളെ ജോലിക്ക് പോലും അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തെ അത് പറയുന്നതാണ് ഓക്കെ ഓക്കെ ഓക്കെ ആ പറഞ്ഞോ

നിങ്ങള് ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ആടി ആടി ആടി ഇരുന്നിട്ട് ആ സമയം കൂടി കവറേജ് ചെയ്യാൻ ബസ്സില് കയറി ബസ്സിന്റെ സ്പീഡ് കൂട്ടുന്നതാണോ അതിന്റെയൊരു ശരി ഇപ്പോള് നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന അതേ ഹോട്ടലില് ഞാനും ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് ഇപ്പോ ഞാൻ ആഹാരം കഴിച്ചിറങ്ങിയിട്ട് ഞാൻ പത്തു മിനിറ്റായി ഞാൻ വെയിറ്റിയ്യുവാണ് എന്നിട്ട് നിങ്ങള്ക്ക് നിങ്ങള്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സമയം തരില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് ഇല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു ടൈമുണ്ടല്ലോ നിങ്ങള് കൃത്യസമയത്തിന് എടുക്ക് സൂപ്പർ ഫാസ്റ്റ് സൂ മാഡം ചുമ്മാതെ നിങ്ങ നിങ്ങള് ആ ചുമ്മാതല്ല കെ എസ് ആർ ടി സി ബസ്സ് ഇത്രയും മുടിഞ്ഞ് മൂച്ചൂട്ടായി പോയതെന്ന് ഞാൻ പറയും നിങ്ങക്ക്ടെ അഹങ്കാരം നിങ്ങളുടെ ധാര്ഷ്ഠ്യം നിങ്ങള് നിങ് പറ്റത്തില്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ സർക്കാര് ഞങ്ങളുടെ ഞങ്ങളുടെ കരമെടുത്ത് ഞങ്ങളുടെ കരം പിരിച്ച കാശ് കൊണ്ടാണ് നിങ്ങള് സർക്കാര് ഗവൺമെന്റ് വാഹനം വാങ്ങിച്ചിട്ടേക്കുന്നത് അത് സാധാരണക്കാര്ക്ക് ഓടിക്കാൻ ഇപ്പോള് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് തിരു തിരുവനന്തപുരത്ത് മേയര് അവിടെ അത് കാണിച്ചായിരിക്കും എല്ലായിടത്തും ഉണ്ടോടോ നല്ലവരും പെന്നവരും അത് എല്ലാവരും ഒരാള് കാണിച്ചതു കൊണ്ട് എല്ലാവരും അതെ അളവിൽ തൂക്കരുത് ഇപ്പോള് ദേ ഈ ട്രാൻസ്പോർട്ട് ബസ്സില് എടോ നിങ്ങടെ ആരും പറയുന്നത് കേള്ക്കണ്ട നിങ്ങള് നിങ്ങള്ക്ക് നിങ്ങള്ക്ക് ഒരു നിയമം ഉണ്ടല്ലോ നിങ്ങള് വേഗത്തില് പോകുന്നവരോട് പറയണ്ട നിങ്ങളുടെ നിങ്ങള് നിങ്ങള് നിങ്ങളുടെ നിങ്ങള് നിയമമനുസരിച്ചിട്ടാണോ ഇപ്പോള് കട്ടപ്പുറത്തിരിക്കുന്ന എ നിങ്ങളെ കൊണ്ടുചെന്ന് എവിടെ ഇടിച്ച് കട്ടപ്പുറത്തിരിക്കുന്ന എത്ര വണ്ടികള് ഇപ്പോള് ഈ ഡിപ്പോയിലുണ്ട് മാഡം ഞാൻ സൂപ്പർ ഫാസ്റ്റ് ബസ്സില് കയറുന്നത് എന്റെ കാശും കൊണ്ടാണ് നിങ്ങളുടെ കാശും കൊണ്ടല്ല ഞാൻ ആദ്യമായിട്ടാണോ അവസാനമായിട്ടാണോ കയറുന്നതെന്നു നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല ഇത് ഞാൻ കംപ്ലയിന്റ് ചെയ്യും ഞാൻ ഇത് ഞാ ഇത് ഞാൻ ഇത് ഞാൻ കംപ്ലയിന്റ് ചെയ്യും നിങ്ങള് എന്റെ കൈയില് നിങ്ങ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടി ഭരിച്ച് ഭരിച്ച് കെ എസ് ആർ ടി സി മുടിഞ്ഞില്ലേ മാഡം സർ നിങ്ങളുടെ കെ എസ് ആർ ടി സി മുടിഞ്ഞോ അവർക്ക് മാസം ശമ്പളം നിങ്ങള് കൊടുക്കുന്നുണ്ടോ മാസാമാസം ശമ്പളം കിട്ടാതെ ആകെ എത്ര വീട് പട്ടിണിയാണെന്നു നിങ്ങള്ക്കറിയാമോ എന്തായാലും ഞാനിത് കംപ്ലയിൻറ്റിയ്യും ഓക്കെ നിങ്ങളൊക്കെ ഭരിച്ചു കുട്ടിച്ചോറാക്കി